നമ്മുടെ ഗ്രാമത്തിൽ നിരവധി സംസ്കാരം പിന്തുടരുന്ന ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അതിൽ തന്നെ പല തരത്തിലുള്ള സംഗീതം നൃത്തം എന്നിങ്ങനെ തുടങ്ങി പലതരത്തിൽ അവരുടെ തനതായ സംസ്ക്കാരം ഇന്നും പുലർത്തുന്നുണ്ട് അതിൽ പ്രദാനമായും ഉള്ളതാണ് പണ്ടത്തെ ആദിവാസി ജനങ്ങളുടെ ഒരു പ്രത്യേക തരം ഭാഷയിൽ അവരുടേതായ ശൈലിയിൽ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നത് ഇത് എനി അടുത്ത തലമുറ പിന്തുടരുമെന്നു ഞാൻ കരുതുന്നില്ല എന്നാലും ഇത്തര ഇത്തരം സാംസ്കാരിക കലകൾ പിന്തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇതിലൂടെ അവരുടെ സംസ്കാരം നിലനിൽക്കുകയും പണ്ടു കാലത്തെ സംസ്ക്കാരത്തിന് കൂടുതൽ ഉണർവ് നൽകുന്നതും ആയി ഇത് കാണാം പണ്ട് പണ്ടുമുതലേ ഉള്ള ഒരു സംസ്കാരമാണിത് പിന്തുടരുന്നതിലൂടെ സാംസ്ക്കാരിക നിലനിൽപ്പ് നിലനിൽക്കുന്നു